നെയ്ത്തും തുന്നലും നെയ്ത്തും തുന്നലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് ഒരു ജീവന ഉപാധി മാർഗ്ഗമാണത് അതല്ലായെങ്കിൽ പോലും ഒരു ജീവനോപാധിമാർഗം അല്ലെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യമാണ് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു തുന്നല് കാരണം നമുക്കറിയാം ദൈനംദിനം നമുക്ക് ആവശ്യമായ സാധനമാണ് വസ്ത്രമെന്ന് പറയുന്നത് ആ വസ്ത്രം നമുക്ക് സ്വന്തമായിട്ട് മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ നെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും തുന്നാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഒരു വ്യക്തി മനസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവരവരുടെ ജീവിതത്തിന് ആവശ്യമായ അവരുടെ കുടുംബത്തിലേക്ക് ആവശ്യമായ വസ്തുക്കൾ തുന്നലിലൂടെ നേടിയെടുക്കുന്നതിനെ സാധിക്കുമെന്നുള്ളതില് യാതൊരു സംശയവുമില്ല കാരണം എനിക്ക് ആവശ്യമായ വസ്ത്രങ്ങള് ഞാന് വലിയൊരു വിപണനമൊന്നും നടത്തുവാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു ഒരു വസ്ത്രം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികം നമ്മള് ചെലവാക്കുന്നത് അത് തുന്നലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് മറ്റൊരാളുടെ ആശ്രയം കൂടാതെ അവരവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ നെയ്ത്തിന് പറ്റണമെന്ന് ഞാൻ പറയുന്നില്ല അതിനുള്ള സാഹചര്യങ്ങളൊന്നുമല്ല അവർക്കുമില്ല ദൂരെ അതിനുള്ള കമ്പനികള് അതല്ലായെങ്കില് അങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തികൾക്കാണെങ്കിൽ പോലും തുന്നലെന്ന് പറയുന്ന പരിപാടി ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതാണ് അതിന് സാമ്പത്തിക ഉറവിടങ്ങളോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഞാൻ നമുക്ക് അത്യാവശ്യം അതിന് വേണ്ട ഉപകരണം മാത്രമേ വേണ്ടി വരികയുള്ളൂ അങ്ങനെ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ആ ഒരു സംരംഭം ഏറ്റെടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് കൊറച്ച് പണം വലിയ രീതിയില് പണം സമ്പാദിക്കാൻ സാധിച്ചില്ലായെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസ ചെലവാകാത്ത വിധത്തില് നമുക്കിപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് അതല്ലായെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു വസ്ത്രം വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ തുക നമുക്കറിയാം പക്ഷേ എങ്കിൽ ഒരു തുണി വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്നത് അതിൻ്റെ തുന്നലിനാണ് ഇപ്പോള് ഏതൊരു വസ്ത്രംത്തേ നമുക്ക് വേണെല് എടുക്കാം ഒരു വിവാഹ വസ്ത്രമാകട്ടെ അതല്ലായെങ്കില് കു ഒരു കുഞ്ഞ് കുട്ടിക്കുള്ള ഉടുപ്പാകട്ടെ ഏത് തുന്നണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു കീറിപ്പോയ ഒന്നും വേണ്ട കീറിപ്പോയ ഒരു തുണി തുന്നണമെങ്കിൽ പോലും അത് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അമ്പത് രൂപയല്ലെങ്കിൽ നൂറ് രൂപയൊക്കെയാണ് അതിന് ചാർജ് പറയുന്നത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരവരുടെ വീടുകളിൽ ഈ തുന്നലിന് ആവശ്യമായ സാമഗ്രികളുണ്ട് എങ്കിൽ നമുക്കാവശ്യമുള്ള വസ്തുക്കൾ നമുക്ക് തുന്നിയെടുക്കുകയും ചെയ്യാം ഇതേപോലെയുള്ള കീറി പോയത് അല്ലങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അധികമായി ചെലവഴിക്കുന്ന ആ പൈസ എല്ലാം നമുക്ക് സേവ് ചെയ്യുന്നതിന് സാധിക്കും